റണ്ണിങ്ങിനെക്കുറിച്ച് പറയാണെങ്കില് ഞാൻ സ്പ അല്ലാതെ ഇങ്ങനെ ഹൈക്കിങ്ങിന് പോയിട്ടുള്ള റണ്ണിങ്ങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് സ്പോർട്സ് മീറ്റില് ഓടിയ കാര്യമാണ് പറയുന്നത് ആ അപ്പോള് അത് നമ്മള് സാധാരണ ഒരു ഓട്ടത്തിലേക്ക് ഓടുന്നതുപോലല്ല നമ്മള് പ്രാക്റ്റീസും ഇതെല്ലം ആവശ്യമുള്ളതാണ് അത് നമ്മളതിന് പ്രിപ്പേറ് ചെയ്തിട്ടേ എപ്പോഴും ഓടാറുള്ളു അല്ലങ്കിലത് നമ്മള് പിന്നീട് ഭയങ്കര അഫക്ട് ചെയ്ത് നമ്മള് ഭയങ്കര ക്ഷീണിതരാകും ഓട്ടത്തിനിടെ വീഴാനും നല്ല എനർജിയൊന്നും കിട്ടാതെ പെട്ടന്ന് ലോസായി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടതിന് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് വളരെ കൃത്യയായ ചിട്ടയോടെ അതിനൊരു ഈ പ്രോസസ്സ് പഠിച്ചിട്ടേ ചെയ്യാവുള്ളു പിന്നെ ഫുഡ് ഹാബിറ്റ്സൊക്കെ മൈൻറ്റയിൻ ചെയ്യണം മൈൻറ്റയിൻ ചെയ്തേ ചെയ്യാവുള്ളു അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കില് ബെറ്ററായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും

ആ അങ്ങനെ ഒരു ഒരു നല്ലൊരു ഫുഡ് ഹാബിറ്റ്സ് തന്നെ ഇണ്ടാക്കിയെടുക്കാം ഒപ്പം ബോഡിയൊക്കെ കുറച്ച് ഹെൽത്തി ആയിരിക്കും അത്ലറ്റ് അത്ലറ്റിക്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ലൈഫില്